കൂടുതല് താല്പര്യത്തോടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ട് ഇപ്പം ഫാഷൻ ഡിസൈനിങ് മേഖലയില് ഡിസൈനിങ്ങിനോടൊക്കെ എനിക്ക് താല്പര്യം ഉണ്ട് അപ്പം അതൊക്കെ ചെയ്താല് പുതിയ ന്യൂ ടെക്നോളജീസ്സ് അഡോപ്റ്റ് ചെയ്ത് കൊണ്ട് ഇതിനേപ്പറ്റിയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എന്തെങ്കിലുവൊക്കെ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലതൊര് വലിയ കാര്യവല്ലേ അപ്പം ഈ സ്റ്റിച്ചിങ്ങിലും വീവിങ്ങിലുവൊക്കെ അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്